ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പം അതിൽ ബന്ധപ്പെട്ട് കുറേ അധികം കോഴ്സുകളുണ്ട് ഇപ്പോൾ ഫിസിക്സ് പരീക്ഷാ അത്പോലെ ബയോ ടെക്നോളജി പിന്നേ നമുക്ക് എഞ്ചിനീയറിങ്ങിൽ നോക്കുകയാണെങ്കിൽ മ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുണ്ട് ശാസ്ത്രപരമായിട്ട് ബയോ ടെക്നോളജി എഞ്ചിനീയറിങ്ങുണ്ട് പിന്നേ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അതും ശാസ്ത്ര വിഷയങ്ങളിൽ വരുന്നതാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കോഴ്സുകൾ നമുക്ക് ഇപ്പോൾ പീ ജിയാണെങ്കിലും യൂ ജിയാണെങ്കിലും ഒക്കെ പഠിക്കാൻ പറ്റും ഇപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കുകയാണ് നല്ല കോളേജുകൾ ഇപ്പോൾ കുറേ എഞ്ചിനീയറിങ്ങ് കോളേജിലാണെങ്കിൽ ഇപ്പോൾ ഗവണ്മെന്റ് കോളേജിലിപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജ് ശ്രീ കൃഷ്ണപുരം പാലക്കാടിലാണെങ്കിൽ ശ്രീകൃഷ്ണപുരം ആകത്തിയാത്തറ എൻ എസ് എസ് കോളേജ് അങ്ങനെ കുറേ കോളേജുകൾ നമുക്ക് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നത് അല്ലാണ്ടിപ്പോൾ നമുക്ക് ഫിസിക്സ ടുത്ത് പഠിക്കണോ അല്ലെങ്കിൽ കെമിസ്ട്രി എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കണം കാരണം ഗവൺമെൻറ് ആർട്സ് സയൻസ് അതിനും കുറേ ആർട്സ് സയൻസ് കോളേജിൽ നമുക്ക് കുറേയുണ്ടിപ്പോൾ നമ്മുടെ നാട്ടിയൽ കോളേജുകളുണ്ട് ഇപ്പോൾ ജൂജിൽ കോളേജ് പിന്നേ ഗേൾസിന് മറ്റെ ഇവിടെയുണ്ട് പാലക്കാട് ആ രണ്ട് പാല അതായത് വുമെൻസ് കോളേജ് കുറേ കോളേജുകളിൽ അതിനുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെയുണ്ട് എന്ന് വെച്ചാൽ സർവകാലാശാലകളിൽ പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിലിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ എം ജി അല്ലെങ്കിൽ വേറൊരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേർസിറ്റിയും നല്ലതാണ് ഏകദേശം നല്ലൊരു സർവകലാശാലകളിൽ വരുന്നതാണ് അത് രണ്ടും